ശരിക്കും നമ്മൾ പഠിക്കുന്നത് ഗുരുവിൽ നിന്ന് തന്നെയാണ് എനിക്കൊരാശാനുണ്ടായിരുന്നു ആശാന്റെ പേര് അത് ഒരു എന്റെ ആശാട്ടിയായിരുന്നു പുള്ളിക്കാരിയുടെ പേര് ജയ എന്നായിരുന്നു സരിഗമ അതിന്റെ ആദ്യാക്ഷരം അല്ലെങ്കിൽ സ്വരങ്ങൾ ഞാൻ പഠിച്ചത് ജയ എന്ന് പറയുന്ന മാമിൽ നിന്നായിരുന്നു എന്റെ മുന്നോട്ടുള്ള സംഗീതജീവിതത്തിൽ അത് വളരെയധികം സ്വാധീനം ചെലുത്തീട്ടുണ്ട്